പതിനാല് പത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തിയേഴ് മുപ്പത് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനൊന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്